ഇപ്പോൾ ആകാശവസ്തുക്കളെയും അവിടെയുണ്ടാകുന്ന പ്രതിഭാസങ്ങളെയും കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് ബൈനോക്കുലർ അങ്ങനൊക്കെയുള്ള നമുക്ക് ആകാശങ്ങളൊക്കെ കാണാൻ പറ്റും അതായത് ദൂരെയുള്ള സംഭവം നമുക്ക് അടുത്തുള്ളതുപോലെ കാണാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ബൈനോക്കുലർ പിന്നെ അതേപോലെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ആകാശത്തിലെ അതായത് ബഹിരാകാശത്തിലെ എല്ലാം പിന്നെ കാര്യങ്ങളെന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇപ്പോൾ റോക്കറ്റ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ നമുക്ക് അവിടെ അതായത് നമുക്ക് ഭൂമിയിൽ അല്ലാതെ നമ്മുടെ ആകാശത്ത് എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് അതൊക്കെ പിന്നെ അത് ആദ്യമൊക്കെ ഭയങ്കര രണ്ടു രണ്ടുവട്ടം ഫൈലിയർ ആയിട്ട് ഇപ്പോഴാണ് അത് വിജയിച്ച് ബഹിരാകാശത്തേക്ക് എത്തിയത്

പിന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഉപകരണം എന്നുവെച്ചിട്ടുണ്ടെങ്കില് റോക്കറ്റ് തന്നെയാണ് പിന്നെ ബൈനോക്കുലർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കാണാൻ ഉള്ള അതായത് ദൂരെയുള്ള സംഭവം അടുത്തേക്ക് കാണാൻ ഉള്ള ഒരിത് മാത്രമാണ് പിന്നെ റോക്കറ്റ് എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും ശക്തവും നൂതനവും ആയ ഉപകരണങ്ങള് ഉപകരണത്തിലൊന്ന്